നമസ്കാരം ഞാനൊരു ക്യാബ് ബുക്കെയ്തിരുന്നു പാലക്കാട് നിന്ന് കൊയമ്പത്തൂര് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ലൊക്കേഷൻ ഒന്ന് തെറ്റിപ്പോയി ക്യാബ് ഒന്ന് ക്യാൻസൽ ചെയ്യണം അതിന് പുറമെ ഞാൻ ഉദ്ദേശിച്ച സമയത്ത് ക്യാബ് വന്നില്ല അത് അതൊരു കാരണമാണ് ല ക്യാബ് ക്യാൻസൽ ചെയ്യണം ട്രിപ്പ് ക്യാൻസൽ ചെയ്യണം ഞാൻ ഉദ്ദേശിച്ച സമയത്ത് എത്തിയില്ലെങ്കിൽ പിന്നെന്തിനാണ് ഞാൻ ക്യാബ് ബുക്കേയ്യണ്ട ആവശ്യം നിങ്ങള് എക്സാറ്റ് ടൈമില് വരും എന്നല്ലെ പറഞ്ഞത് ക്യാബ് ഇത്രയും നേരായിട്ടും ക്യാബ് വന്നട്ടില്ല അതുകൊണ്ട് ഞാൻ ക്യാൻസലെയ്യാട്ടോ പിന്നെ ഇതിന് പുറമെ എനിക്ക് എനിക്ക് പോകണ്ട സ്ഥലം ചെറുതായി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നു അതുകൊണ്ട് ക്യാബ് ക്യാൻസൽ ചെയ്യേണ്ട വരും ഒന്ന് ഇത് ശരിയല്ല ഞാൻ നമ്മള് ക്യാബ് ബുക്കെയുന്നത് ഓൺ ടൈം എത്താൻ വേണ്ടിയിട്ടാണ് ക്യാബ് ബുക്കെയ്യുന്നത് അത് പ്രോപറായിട്ട് എത്തിയില്ലെങ്കിൽ അത് നല്ലതല്ല മോശമാണ് ക്യാബ് ബുക്കെയ്യുന്നത് നമ്മുടെ ടൈമിന് കിട്ടാൻ വേണ്ടിയിട്ടാവും അല്ലെങ്കിൽ നമ്മുടെ ടൈമ് പെ പെട്ടെന്നെത്താൻ വേണ്ടിയിട്ടാണ് ക്യാബ് ബുക്കെയ്തത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെ വരുന്നതല്ലല്ലോ അതുകൊണ്ടാണ് എനിക്ക് ലൊക്കേഷൻ ചേഞ്ചെയ്യേണ്ടി വന്നത് പോകേണ്ട സ്ഥലം ചേഞ്ചായി എനിക്കൊരു ബിസിനസ് മീറ്റിങ്ങായിരുന്നു അത് നിങ്ങള് പറഞ്ഞ സമയത്ത് വരാത്തത് കൊണ്ട് എനിക്ക് ആ ട്രിപ്പ് ക്യാൻസലെയ്യേണ്ടി വന്നു എനിക്ക് ലൊക്കേഷൻ ചേഞ്ചെയ്യേണ്ടി വന്നു ഞാൻ പാലക്കാട് നിന്ന് വേറൊരു വഴിക്ക് പോകുവാണ് അതുകൊണ്ട് ക്യാബ് കാൻസലേഷൻ ചെയ്യ് കാൻസലെയ്യണം കേട്ടോ